ഞങ്ങളുടെ പ്രദേശത്ത് കണ്ടുവരുന്ന വലിയ ഒരു പ്രശ്നം തന്നേയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്നു പറയുന്നത് ഇപ്പത്തന്നെ നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നാണ് ഡൈബെറ്റിക്സ് ഷുഗർ പേഷ്യന്റ്സിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് നാട്ടിൽ അതിൻ്റെ പ്രധാനമായുള്ള കാരണങ്ങൾ നമുക്ക് പറയാൻപറ്റ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും ജീവിതശൈലി വ്യായാമത്തിൻ്റെ കുറവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങൾ ഒക്കെ അതിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണിങ്ങനെയുള്ള അസുഖങ്ങൾ പിടികൂടുന്നത് അതുപോലെ പകർച്ചവ്യാധികളുടേത് കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികൾ സംഭവിക്കുമ്പോൾ പറ്റുന്നതെന്താാനെന്നു വെച്ചു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു ജനതയെ തന്നെ ബാധിക്കുന്ന വലിയരീതിക്കുള്ള പ്രശ്നമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് സാംക്രമിക രോഗങ്ങളും അതേപോലെ പോഷകാഹാരക്കുറവും നമുക്ക് വലിയ തോതിൽ ഇല്ലെങ്കിലും കാണപ്പെടുന്നുണ്ട് സ്ത്രീകളിൽ അനീമിക്കായി വരുന്ന കണ്ടിഷനാണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും പെൺകുട്ടികളും കൂടുതൽ അനീമിക്കായി അവർക്ക് അയൺ കണ്ടെന്റ് ബോഡിയിൽ കുറയുന്നത് വലിയൊരു തോതിൽത്തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കാണുന്ന ഒന്നാണ് ഞങ്ങളുടെ പ്രദേശത്ത് കാണുന്ന ഒന്നാണ് അതേപോലെ ന്യൂട്രിഷൻ കുറഞ്ഞിട്ടുള്ള കുട്ടികളുടേത് നമുക്ക് അത് താരതമ്യേന കുറവാണെന്ന് അതിനെ പറയാം ഇപ്പോൾ തന്നെ ഈ ഷുഗർ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളെയാണ് കൂടുതൽ ഞങ്ങളുടെ സംസ്ഥാനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രദേശം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമെന്നു പറയുമ്പോൾ ഈ ഷുഗർ അതേപോലെ കൊളെസ്ട്രോൾ അങ്ങനെയുള്ള രോഗങ്ങളാണ് കൂടുതൽ പിന്നെ കാൻസർ പോലെയുള്ള രോഗങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതും ഉണ്ട് കുടുതലും ജീവിതശൈലി രോഗങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൽ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് പകർച്ചവ്യാധികളെന്നു പറയുമ്പോൾ ഈ അടുത്തു വന്നതാണ് ഡെങ്കയു പോലെയുള്ള പകർച്ചവ്യാധികൾ അതുപോലെ കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികൾ അങ്ങനെയുള്ള പകർച്ചവ്യാധികളാണ് വന്നു കൊണ്ടിരിക്കുന്നത് വൃത്തിഹീനമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്നു വരുന്നത് കുറവായിരിക്കാം പക്ഷെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് പകർച്ചവ്യാധികൾ കുറവാണെങ്കിലും കൊറോണ പോലെയുള്ള വലിയ വലിയ വ്യാധികൾ മാത്രമേ ബാധിക്കാറുള്ളു മറ്റേ മറ്റു വരുന്ന പല പകർച്ചവ്യാധികളും നമുക്കു തന്നെ നേരിടാൻ പറ്റുന്ന കുറയ്ക്കാൻ പറ്റുന്ന രീതിയ്ക്ക് തന്നയെ വരാറുള്ളൂ